ഞങ്ങളുടെ സ്ഥലത്ത് ഒരു അടുത്ത് ഒരു ആഘോഷം ഉണ്ടായിരുന്നു അവിടെ അതിന് ശേഷം എൻ്റെ മാലിന്യങ്ങൾ ഒത്തിരി ഉണ്ടായി ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ശരിയായ ശുചീകരണം ഉറപ്പാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ അത് പഞ്ചായത്തിലേക്ക് വിളിക്കുകയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പരിഹരിക്കാനായിട്ട് ഒരു ശുചീകരണം ഉണ്ടാകണം അന്ന് അവിടെ വലിയ ഒരു പരിപാടി ആയിരുന്നു കുറേ ആളുകൾ ഒരുമിച്ചു കൂടിയിരുന്നു പക്ഷേ ഇതിനകത്ത് ഫ്രഷ് വസ്തുക്കൾ കൂടുതൽ കവറുകൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇവ കൃത്യായിട്ട് മാറ്റിയില്ല മാലിന്യം എല്ലാ ഇടത്തും ഒരുമിച്ചു കൂടി എല്ലാവരും വൃത്തിയായിട്ട് കൈകാര്യം ചെയ്തില്ല മാലിന്യങ്ങൾ ഒരുമിച്ചു കൂടുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ പരിസ്ഥിതിക്ക് ദോഷമാണ് ഇത് റിപോർട്ട് ചെയ്യുന്നത് എനിക്ക് ആവശ്യമായിട്ട് തോന്നുന്നു ഇതിന് നിങ്ങൾക്ക് ഒരു പരിഹാരം നൽകാൻ സാധിക്കണം കാരണം എന്നു വച്ചാൽ നിങ്ങളുടെ ഉത്തരവാദം ആണ് അത് ഇങ്ങനെയുള്ള സമൂഹത്തിൽ പൊതു പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നത് ഒരു നമ്മുടെ കുടുംബത്തിൽ എല്ലാ വ്യവസ്ഥ കൾക്കും താല്പര്യങ്ങൾക്കും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അസുഖങ്ങൾ ഉണ്ടാവാം രോഗങ്ങൾ ഉണ്ടാവാം ഈ ഈ ഈ നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റേയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ് ഇത് കൃത്യമായിട്ട് പരിഹരിക്കണം അല്ലെങ്കിൽ അതിനുള്ള നടപടി സ്വീകരിക്കണം ഇത് സംസ്കരിക്കണം ശരിയായ രീതിയിൽ ഇത് സംസ്കരിച്ചു ആർക്കും ദോഷം പരിസ്ഥിതിക്കും ദോഷം വരാത്ത രീതിയിൽ സംസ്കരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം എന്നത് ഒരിക്കലും സമൂഹത്തിന് ദോഷമല്ല നാടിന് ദോഷമല്ല എപ്പോഴും ഇതിനായി പരിശ്രമിക്കുന്നത് നിങ്ങൾക്കും എനിക്കും നമ്മുടെ നാടിൻ്റെ വ്യവസ്ഥക്കും ഇപ്പോഴും നന്നായിരിക്കും ശാരീരിക മാനസിക അസുഖങ്ങൾ ഉണ്ടാവാതെയും അങ്ങനെയുള്ള ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങ ൾ എപ്പോഴും ദോഷമാണ് അസുഖം ഉണ്ടാവാം രോഗങ്ങളുണ്ടവാം നിങ്ങൾ പരിശ്രമിക്കുക നന്നായിട്ട് പരിപാലനം ചെയ്യാനായിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് പരിശ്രമിക്കുക നന്നായിട്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു പ്രവൃത്തി ചെയ്യുന്നു നന്നായിട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അത് ഒരിക്കലും ദോഷഫലം ഉണ്ടാക്കുകയില്ല ആ ദോഷഫലങ്ങൾ ഒരു സമൂഹത്തിലെ വ്യക്തികൾക്ക് ഹാനീകരമായ രീതിയിൽ ഉണ്ടാവാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ പരിഹാരം ഉണ്ടായിരുന്നത് അതിൻ്റെ ഉദ്യോഗസ്ഥർ ഉണ്ട് അതിൻ്റെ പോലീസ് ഹരിത കർമ്മ സേന കുടുംബശ്രീ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ എപ്പോഴും ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും അത് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യേണ്ട ആൾക്കാരെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാർ ധാരളമുണ്ട് നമ്മുടെ സഹോദരങ്ങൾ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട് നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം പക്ഷെ അത് എപ്പോഴും പ്രായോഗികമല്ല ഇങ്ങനെയുള്ള പ്രവർത്തികൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക ഒരിക്കലും അത് നമുക്ക് ദോഷം നൽകുന്നതാവില്ല അങ്ങനെയുള്ള പ്രവർത്തികൾ എപ്പോഴും നിങ്ങൾ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളിലും ഒരു സമൂഹത്തിന് ഉന്നമനത്തിന് നന്നായിരിക്കും എല്ലാ പ്രവൃത്തികളും നന്നായിരിക്കും ഇനി ഇങ്ങനെയുള്ള പ്രവർത്തികൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ അതായത് ഒരു പ്രോഗ്രാം പൊതു പ്രോഗ്രാം നടക്കുമ്പോൾ അത് നമ്മുടെ കൃത്യമായിട്ട് ചട്ടക്കൂടിൽ നടത്തുവാനായിട്ട് പരിശ്രമിക്കുന്നത് നന്നായിരിക്കും